വയനാട് ജില്ലയിൽ ആഘോഷിക്കുന്ന പ്രധാന സാംസ്ക്കാരിക ഉത്സവങ്ങൾ എന്നൊക്കെ പറയുന്നത് വള്ളിയൂർക്കാവ് അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് മെയിൻ ആയിട്ട് വയനാട് ജില്ലയിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഉത്സവം എന്ന് വെച്ചാൽ വള്ളിയൂർക്കാവ് ഉത്സവമാണ് പിന്നെ ഉണ്ട് മാരിയമ്മൻ ക്ഷേത്രത്തിലെ ഉത്സവം അങ്ങനെ ഉള്ളതൊക്കെയുണ്ട് പക്ഷേ വയനാട്ടിലെ എല്ലാവരും കൂടെ ഇപ്പം മാരിയമ്മൻ അംമ്പലത്തിലൊക്കെ ഇപ്പം എല്ലാവരും പോവണം എന്നില്ല പക്ഷേ വയനാട്ടിൽ എല്ലാവരും കൂടെ ഒത്തുച്ചേരുന്ന ഒരു സ്ഥലാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളിയൂർക്കാവ് അമ്പലമാണ് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഉത്സവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആഘോഷിക്കുന്ന സമയം എപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് മാർച്ചിലാണ് വള്ളിയൂർക്കാവ് ഉത്സവം വ എല്ലാ മതങ്ങളും വരും പിന്നെ മാർച്ച് പതിനാല് ദിവസം അതായത് പതിനാല് ദിവസം മ മീനം ഒന്ന് തൊട്ട് പതിനാല് വരെയാണ് ഉദ്ദേശിക്കുന്നത് അത് ഏതൊക്കെ ദിവസമാണ് വെച്ചാൽ മാർച്ചിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം ആ പതിനാല് ദിവസവും നമുക്ക് ആഘോഷം തന്നെയാണ് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ ആഘോഷമുണ്ട് മഹാ ശിവരാത്രി റിപ്പബ്ലിക്ക് ദിനം അങ്ങനെ ഉള്ളതൊക്കെയുണ്ട് സ്വാതന്ത്ര്യ ദിനം അങ്ങനെയൊക്കെ സ്വാതന്ത്ര്യ ദിനം എന്ന് പറഞ്ഞാൽ നമ്മൾ പായസം വയ്ക്കും പിന്നെ കൊടി ഉയർത്തും സ്കൂളുകളിൾ കൊടി കൊടി ഉയർത്തും അങ്ങനെയൊക്കെ പിന്നെ ശിവരാത്രി നമ്മൾ ശിവൻ ഉറങ്ങിയിട്ട് നമ്മൾ ഒറ ഒണ ഉണർന്നിരിക്കുന്ന സമയമാണല്ലോ അങ്ങനയൊക്കെ ചെയ്ത് നമ്മൾ അന്നൊക്കെ ഗാനമേള അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാവും അതൊക്കെ കാണാൻ പോവും അങ്ങനെയൊക്കെ ചെയ്യും